മലയാള ഭാഷ എന്നുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിലുള്ള ഒരു ഭാഷയാണ് മലയാളം ആ മലയാളത്തിൽ തന്നെ സവിശേഷതകൾ എന്നു പറയുമ്പോൾ പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് എങ്കിൽ പതിനാല് ജില്ലകളിലും വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ്ങുകളാണ് മലയാളത്തിലുള്ളത് വ്യത്യസ്ത സ്ലാങ്ങുകളും അതുപോലെ തന്നെ ഇപ്പം കാസർഗോഡ് ഭാഷയാണെങ്കും ആ കാസർഗോഡ് സ്ലാങ്ങാണെങ്കിൽ ആ സ്ലാങ്ങിനുള്ളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേറെ സ്ലാങ്ങും ഉപ സ്ലാങ്ങുകളും കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഓരോ ജില്ല മാറുമ്പോഴും വയനാട് അതുപോലെ മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ തൃശ്ശൂരിൻ്റെയൊക്കെ ഒരു വേറെ സ്ലാങ്ങാണ് തൃശ്ശൂരെന്ന് പറയുമ്പോൾ നമ്മളെ സാംസ്കാരിക നഗരി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമായതു കൊണ്ടുതന്നെ അവിടെ വേറൊരു തരത്തിലുള്ള ഒരു ശൈലിയായിട്ടുള്ള സംസാരം ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ സംസാരത്തിനും ഓരോരോ സംസ്കാരങ്ങളും രൂപപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യാകരണങ്ങളെന്ന് പറയുമ്പം മലയാളത്തിൽ കർത്താവ് ഇതിലുണ്ടാവേണ്ടത് കർത്താവ് കർത്തവ്യം അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രവർത്തി ചെയ്യുന്ന ആളുവേണം അതുപോലെ തന്നെ പ്രവർത്തി അവിടെ നടക്കണം ഇത് രണ്ടും അത്യാവശ്യമാണ് അ ഉച്ചാരണം മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ടഫ്ഫുള്ള ടഫസ്റ്റ് ലാംഗ്വേജാണ് മലയാളം എന്നാണ് പറയപ്പെടാറുള്ളത് കാരണം അതിലുള്ള പല ഉച്ചാരണങ്ങളും പല പല അക്ഷരങ്ങളും വിദേശ രാജ്യത്തിലെ ആളുകൾക്ക് ഉച്ചിരിക്കാൻ കഴിയില്ല ഴ അതുപോലെ തന്നെ റ ഹ ഹ കഴിയും ഴ പിന്നെ ള ഘ ഞ എന്നൊന്നും പല ആളുകൾക്കും ഉച്ചരിക്കൻ കഴിയാറില്ല ള ഒക്കെ പോലെയുള്ള അക്ഷരങ്ങളൊന്നും പല മലയാളികൾക്ക് അത് നാവ് വഴങ്ങിയിട്ടുണ്ടാവും ബാക്കിയുള്ള പുറം രാജ്യങ്ങളെ ആളുകൾക്കോ ഈവൻ നമ്മുടെ ബംഗാളികൾക്കൊന്നും ഴ മഴ എന്നൊന്നും പറയാൻ പഴിയ മജ എന്നൊക്കെ അവർ പറയാം അവർക്ക് അത്രത്തോളം ടഫസ്റ്റാണ് അവർക്ക് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ മലയാള ഭാഷ എന്ന് പറഞ്ഞത് ഇപ്പം ഫോറിൻ ഇപ്പം ഈ അടുത്തായിട്ട് ഇ അമേരിക്കകാരെ ആണെങ്കിലും കാനഡ കുറേ ആളുകളൊക്കെ ഇംഗ്ലീഷ് യൂറോപ്പിൻ കൺട്രികളിലുള്ള ആളുകൾ കുറേ ആളുകൾ മലയാളത്തിലേക്കും കേരളത്തിലേക്കും മലയാളം പഠിക്കാൻ വേണ്ടിട്ടുള്ള ആകൃഷ്ടരായി വന്നിട്ടുണ്ട് അതായത് അവർ ചെറുപ്പത്തിൽ ഒരു അഞ്ച് വയസ്സിലൊക്കെ കേരളത്തിലെത്തിയാൽ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വയസ് വരെ കേരളത്തിൽ ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ജീവിച്ചാൽ അവർക്ക് മലയാളം വളരെ സിമ്പിളാവുകയും പിന്നെ സ്വാഭാവികായിട്ടും അവരുടെ മദർടങ്ങായ അവരുടെ ഭാഷയായ കാനഡ ഫ്രഞ്ചോ അല്ലെങ്കിൽ സ്പാനീഷോ അല്ലങ്കിൽ ഇംഗ്ലീഷോ അങ്ങനെയാണെങ്കിൽ അവർക്കതും സ്യൂറ്റബിളായിട്ട് പോകും അപ്പോൾ അത് നമ്മൾ ജർമ്മനൊക്കെ ഒരാ ആൾക്കർക്ക് അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മളെ മലയാള ഭാഷയുടെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൻ്റെ വളരുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവാണ് കാരണം ഫോറിൻ ഇങ്ങനെ ഒരു പ്രാദേശികമായ ഭാഷ കേരളത്തിലെ ഒരു പ്രാദേശികമായ ഭാഷയെ മലയാളത്തിനെ ഇൻറ്റർനാഷണൽ ലെവലിലുള്ള ആളുകളൊക്കെ നോക്കി നോക്കുമ്പോൾ അതൊരു തീർച്ചയായിട്ട് അത് കേരളത്തിൻ്റെ ഭാഷയായ മലയാളത്തിൻ്റെ ഒരു ഉയർച്ചയായിട്ട് തന്നെയാണ് മനസിലാക്കേണ്ടത്